എനിക്കൊരു ക്യാബ് റെൻറിന് എടുക്കാനായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണ് ഞാനും ഞങ്ങൾ ഫ്രണ്ട്സ് അഞ്ച് പേരു കൂടെയാണ് ട്രിപ്പ് പോകാന് പ്ലാൻ ചെയ്തേക്കുന്നെ അപ്പോള് ഞങ്ങള് ക്യാബ് റെൻറിന് എടുത്ത് പോകാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നെ അങ്ങനാണേൽ എത്ര രൂപ ആയിരിക്കും റെൻറ് വരിക ആ ഓരോ കിലോമീറ്ററും എത്ര രൂപ വെച്ചാണ് നിങ്ങള് ചാർജ് ചെയ്യുന്നേ സാധാരണ ഞങ്ങൾ മൊത്തത്തിൽ അഞ്ച് പേരാണ് അത് അനുസരിച്ചുള്ള സീറ്റുള്ള വണ്ടിയാണ് ഞങ്ങൾക്കാവശ്യം പിന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നതും അഞ്ച് ദിവസത്തേക്കാണ് പിന്നെ ഞങ്ങള് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് മൂന്നാറിലേക്കാണ് അപ്പോള് അവിടെ ചെന്നിട്ട് മൂന്ന് ദിവസത്തേക്ക് ഞങ്ങള് സ്റ്റേ ആണ് അങ്ങനെയാണെങ്കിൽ പ്ലാൻ ചെയ്തേക്കുന്ന ദിവസം അപ്പോള് ആ ദേവസം തൊട്ട് എത്ര കിലോമീറ്റർ ഒക്കെ കണക്കാക്കി എത്ര രൂപയാകുമെന്ന് ഒന്ന് പറയാൻ പറ്റുമോ അതറിഞ്ഞിരുന്നെങ്കിൽ പകുതി പൈസ അഡ്വാൻസായിട്ട് നല്കാമായിരുന്നു ബാക്കി തിരികെ വരുമ്പോള് നൽകാം പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കില് കോൺടാക്ട് ചെയ്യാം